ആറ് അഞ്ച് രണ്ടായിരത്തി അഞ്ച് എട്ട് അഞ്ച് രണ്ടായിരത്തി ആറ് ഒൻപത് ഒന്ന് രണ്ടായിരത്തി രണ്ട് ഏഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തിത്തൊണ്ണൂറ്റി ഏഴ് പത്തൊമ്പത് നാല് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ്